എൻ്റെ കാലഘട്ടത്തിൽ ഡ്രോയിംഗ് ക്ലാസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അങ്ങനെയല്ല ഇതിന് എല്ലാം പ്രത്യേക ക്ലാസുകൾ തുടങ്ങിയിട്ടുണ്ട് ചിത്രം എന്നത് ഒരു രചനയാണ് അത് പഠിച്ചാൽ നല്ലതായിരിക്കും അന്ന് അങ്ങനെ സാഹചര്യം ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഓരോ ചത്രങ്ങളും ഞാൻ വരയ്ക്കാ വരയ്ക്കാതിരുന്നത് എൻ്റെ ഹൃദയത്തിൽ നിന്ന് ആണ് പലപ്പോഴും ഞാൻ അറിയാതെ ജീവൻ തുടിക്കുന്ന സൃഷ്ടി ഉണ്ട് ഇനിയും ഒത്തിരി നന്നായി വരയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ആരുടെ അടുത്തെങ്കിലും ക്ലാസിന് പോയാൽ പോകാൻ എന്ന് എനിക്ക് തോന്നുന്നു തലമുറക്ക് നന്നായി പരിശീലനം കൊടുത്ത് അവരെ വളർത്തിക്കൊണ്ട് വരണം